എല്ലാ നല്ല കാര്യങ്ങൾക്കും സമയമെടുക്കുമെന്നാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പം ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പ ഞാന് എനിക്ക് പെട്ടെന്നൊരു ചിത്രം വരക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാത് പെട്ടെന്നാണ് നടക്കണമെന്നില്ല ആദ്യം തന്നെ നമുക്ക് വേണ്ട കാര്യമെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് നന്നായത് അതായത് എന്ത് നമ്മള് ചെയ്യുകയാണെങ്കിലും അത് സ്ഥിരമായി അല്ലങ്കിലൊരു ഒര് കാലാവധിയില് നമ്മള് നിത്യമായി ചെയ്തുകൊണ്ടിരിക്കണം എനിക്കൊരു പൂച്ചയെ വരയ്ക്കാൻ പഠിക്കണം ആദ്യത്തെ ദിവസം തന്നെ ഞാന് ആ പൂച്ചയുടെ പോലെ തന്നെ ഉള്ളൊരു ചിത്രം വരയ്ക്കണം എന്നല്ല അപ്പം ഞാനാദ്യം ഒരു പൂച്ചയുടെ ചിത്രം വരയ്ക്കും എന്നിട്ട് അടുത്ത ദിവസം അതേ പൂച്ചയുടെ ചിത്രം ഒന്നും കൂടെ വരയ്ക്കും മൂന്നാമത്തെ ദിവസം പിന്നേയും വരയ്ക്കും നാലാമത്തെ ദിവസോക്കെ ആകുമ്പൾത്തേന് ആദ്യത്തെ ദിവസത്തിനെ കാട്ടിലും നല്ലൊരു പൂച്ചയുടെ ചിത്രമൊക്കെ ആയിട്ടുണ്ടാകും കെട്ടോ അങ്ങനെ വരച്ച് വരച്ച് വരച്ച് വരച്ച് ഒര് ഒന്നര മാസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ശരിക്കും ജീവനുള്ള ഒരു പൂച്ചയുടെ പോലെ വരയ്ക്കാൻ പറ്റും വേറൊരു കാര്യമെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മളൊരുപാട് കാര്യങ്ങളൊന്നിച്ച് ചെയ്യരുത് എനിക്കിന്ന് തന്നെ ആളുകളെ മുഖം നോക്കി വരക്കണം അല്ലങ്കില് ഞാൻ കാണുന്നതെല്ലാം അപ്പത്തന്നെ വരച്ച് വയ്ക്കണം എന്നൊന്ന് വിചാരിച്ച നടക്കണന്നില്ല നമ്മളൊരു കാര്യത്തില് തുടങ്ങുക ചിലപ്പം അതൊരു കസേര അല്ലെങ്കിൽ മേശ നമ്മുടെ വീട്ടിനകത്തുള്ള ഏതെങ്കിലൊരു എന്താ പറയുക പുസ്തകമോ അല്ലെങ്കിൽ വല്ല കട്ടിലോ കിടക്കയോ എന്തെങ്കിലൊക്കെ ആയിരിക്കും പക്ഷേ നമ്മള് എന്താ വരക്കാനുദ്ദേശിക്കന്നതെന്ന് വെച്ചാൽ നമ്മളാദ്യം അത് വെച്ച് തുടങ്ങുക അത് നമ്മളൊരാഴ്ച് രണ്ടാഴ്ച് മൂന്നാഴ്ച്ച അത് ശരിയാകുന്നത് വരെ വരച്ച് കൊണ്ടേ ഇരിക്കുക എന്നിട്ടത് നല്ല ഒരു ചിത്രമായി മാറിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം അടുത്തത്തിലേക്ക് പോവുക അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ചു വരച്ച് കഴിഞ്ഞാൽ ചിലപ്പ ശരിയാകണമെന്നില്ല പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാരേയും എന്ന് വെച്ചാൽ നമ്മളെ തന്നെ താരതമ്യം ചെയ്ത് നോക്കണ്ട ആവശ്യമില്ല ഇപ്പം നമ്മള് വരയ്ക്കുന്ന പോലെയല്ല ജന്മന കഴിവുള്ള ഒരാള് വരയ്ക്കുന്നത് കഴിവ് വേണമെന്നില്ല ചിത്രം വരയ്ക്കാൻ പക്ഷേ കഴിവുള്ളവർക്ക് പ്രത്യേകമായി വരയ്ക്കാൻ പറ്റും അവർക്ക് ചിലപ്പോൾ നമ്മളെ പോലെ ഒരാഴ്ച്ച രണ്ടാഴ്ച്ച വരയ്ക്കണമെന്നില്ല എന്ത് നോക്കി വരച്ചാലും അപ്പം തന്നെ ആകണം എന്നുണ്ട് പക്ഷേ കഴിവില്ലെങ്കിലും നമ്മള് നന്നായി പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്കിത് നടക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നന്നായി ചെയ്ത് ചെയ്ത് ചെയ്ത് പഠിക്കുക എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത് കാരണം വരക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതും നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നതുമായിട്ടുള്ളൊരു കലയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്